ആ ചേച്ചി ഒന്ന് നിൽക്കണേ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഇവിടെ അടുത്ത് നല്ല കടൽ മൽസ്യം ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടല് എവിടെയാണ് ഉള്ളത് ഇതിൽ നമുക്കിപ്പോൾ അടുത്തിപ്പോൾ പെട്ടന്നിപ്പം പോയിക്കഴിക്കാൻ പറ്റിയ ഹോട്ടല് ഏതാണുള്ളത്

അവടെയെങ്ങനെയാണ് ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണോ ചേച്ചി പോയിട്ടുണ്ടോ അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒക്കുന്നതാണോ നമ്മളത്ര വലിയ ഇതൊന്നുമല്ല ചെറിയൊരു വിലയ്ക്ക് നോക്കിയിട്ട് കിട്ടിയാൽ പോകാമെന്ന് വിചാരിക്കണതാണ് പിന്നെ നമ്മൾ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നതാണ് നമ്മൾ കുറേ ആൾക്കാരുണ്ട് ആ അവിടെയിപ്പം നമ്മൾ വണ്ടിയെടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വണ്ടിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലമുണ്ടോ

ഉം ഉം ഉം

അടുത്തതായിട്ട് വേറെ ഏതാണ് കുറച്ച് വില കുറഞ്ഞിട്ട് കടൽ മൽസ്യം കിട്ടുന്ന ഹോട്ടലുണ്ടോ ഇതല്ലാണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇവിടെയാണല്ലോ നമ്മളുള്ളത് ആ അത് ഇവിടെ നമ്മൾ വരുന്ന വഴിക്കൊരു ഭാരതി ഹോട്ടല് കണ്ടിട്ടുണ്ടായിരുന്നു അതാണോ ഇവിടെ മറ്റേ സ്റ്റേഷൻ റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ നമ്മൾക്കാലോചിച്ചിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാം എന്നാൽ ശരി ചേച്ചി എന്നാൽ